പത്രം പലവിധ പത്രങ്ങളും ഞങ്ങളെ ചുറ്റും കിട്ടുന്നുണ്ട് മലയാള മനോരമ മാതൃഭൂമി കൂടുതലും മലയാള മനോരമ പത്രം വായിക്കാനാണ് എനിക്കിഷ്ടം പത്രങ്ങൾ ദിവസം രാവിലെ വായിക്കുന്നതുകൊണ്ട് തന്നെ ലോക കാര്യങ്ങളുടെ അറിവ് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള ന്യൂസുകളും അറിവുകളും കിട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ പത്രം ദിവസം രാവിലെ വായിക്കും രാവിലെ എണീച്ചിട്ട് മറ്റു ജോലികൾ ചെയ്തിട്ട് പത്രം വായിക്കുന്നുണ്ട് ലോക കാര്യങ്ങളും അറിയുന്നുണ്ട് ഞങ്ങളുടെ കേരള ജില്ലയിലെ ഇന്നലെയും നടന്ന പ്രധാന കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയുന്നുണ്ട് പിന്നെ സ്പോർട്സ് കായികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പത്രത്തിലുള്ള വായിക്കാൻ പറ്റുന്ന കോമിക്സും വായിക്കലുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള പസിലുകളും പിന്നെ ഞങ്ങളുടെ ഇന്ന് കാല ആധുനിക കാലത്തിലെ ഞങ്ങൾ നേരിടുന്ന പല കാര്യങ്ങളെയും പസിലുകളാക്കിയും കൊമിക്സ് ആക്കിയിട്ടും വരുന്നതും ആസ്വദിച്ചിട്ട് വായിക്കുന്നുണ്ട് ഇഷ്ടമാണ് അത് വായിക്കാൻ അതിൻ്റെ കോമിക് ചിത്രങ്ങളും ആസ്വദിക്കലുണ്ട് പത്രങ്ങളിലെ ഓരോ പേജും വായിക്കാൻ ഇഷ്ടമാണ് പത്രത്തിലുള്ള ഓരോ പേജും ഓരോ അറിവുകളാണ് ആ ഓരോ അറിവിനെയും വായിച്ചെടുക്കലുണ്ട് പ്രാദേശികമായ ന്യൂസിനെ അറിവിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കലുണ്ട് ഞങ്ങളുടെ ചുറ്റുകളിൽ നടക്കുന്ന പ്രാദേശികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പത്രങ്ങളിലൂടെ ഞങ്ങൾ വായിച്ചു മനസ്സിലാക്കാനാണ് ഇഷ്ടം അതിൽ ഉള്ള അറിവുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോളും ഓർമ്മ നിൽക്കുന്ന അറിവുകളാണ് പത്രത്തിൻ്റെ ഹെഡിങ് വായിക്കൽ പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് വായിക്കൽ ഇത് കുട്ടികളിലും വായിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുന്നുണ്ട് ദിവസവും അതുകൊണ്ട് തന്നെ പത്രവായന വളരെ ഇഷ്ടമാണ് ഒരു ദിവസം പത്രം വായിച്ചില്ലെങ്കിൽ ഇന്നലെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള ഒരു അറിവ് കിട്ടുന്നില്ല വായന പ്രിയങ്കരമാകുന്നത് പത്രവായനയിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ചെറിയ ചെറിയ കോളങ്ങളിലും പോലും ഓരോ ന്യൂസ് ആണ് അറിയേണ്ടതെല്ലാം പത്രങ്ങളിൽ എല്ലാ കോളങ്ങളിലും ഇട്ടിട്ടുണ്ടായിരുന്നു ജനന മരണം പിന്നെ സ്പോർട്സ് വിദ്യാഭ്യാസത്തിനെക്കുറിച്ചിട്ട് പിന്നെ ആവശ്യങ്ങളെ കുറിച്ചിട്ട് പ്രധാന സംഭവങ്ങളെ കുറിച്ചിട്ട് എല്ലാം ഈ പത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പത്രം വായനയിലൂടെ അറിവ് മാത്രമല്ല ലോക കാര്യങ്ങളിൽ ഒരു എത്തിനോട്ടം കൂടിയാണ് പത്രവായന അതുകൊണ്ടുതന്നെ എനിക്ക് പത്രവായന വളരെ ഇഷ്ടമാണ് അതിലുള്ള കൊമിക്കും ഞാൻ ആസ്വദിക്കാറുണ്ട് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഓരോ പത്രം ഉണ്ടാക്കിയിട്ടുളളത് അതുകൊണ്ട് എല്ലാരും പത്ര വായന തുടരുക പസിലുകൾ വായിക്കാറുണ്ട് ആസ്വദിക്കാറുമുണ്ട്